ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെക്കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പോൾ സ്കൂളിലങ്ങനെ കൊഴിഞ്ഞ് പോക്ക് ഹാജറാവാതിരിക്കല് എന്നീ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്കിപ്പോൾ അദ്ധ്യാപകരൊക്കെ ചേർന്ന് നമുക്ക് തടയുന്നുണ്ട് കാരണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദിവാസി കുട്ടികളാണ് കൂടുതലും സ്കൂളിലേക്ക് വരാൻ മടി കാണിക്കുന്നത് അല്ലാത്ത കുട്ടികളൊക്കെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീട്ട് അതായത് മടിയുണ്ടെങ്കിലും വീട്ടുക്കാര് തള്ളിപ്പറഞ്ഞ് വിടുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ നമ്മള് ആദിവാസി കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവുന്നില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവുന്നില്ല ആ ഒരു രീതിയില് പിന്നെ ഇരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരെ വീട്ടിലൊക്കെ പോയി പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴൊക്കെ കുറേ കുട്ടികളൊക്കെ ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കേ വരുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് അതായത് പല കഞ്ചാവ് എം ഡി എം എ പിന്നെ ഹാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവര് വേറൊര് മൈന്റില് പോകും അതായത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥ അതായത് വിദ്യ അദ്ധ്യാപകർക്കാണെങ്കിലും വിട്ടുകാർക്കാണെങ്കിലും അവരെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നുകൊണ്ടിരിയ്ക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽനിന്ന് നമ്മള് വിശ്വസിച്ച് വിടും സ്കൂള് പോവുകയാണല്ലോ അപ്പോൾ നമ്മൾക്ക് നമ്മളറിയുന്നില്ലല്ലോ ഇപ്പോൾ ചിലപ്പോൾ ടീച്ചർ ചിലപ്പോൾ വിളിച്ച് ചോദിക്കില്ല അങ്ങനെ ഒരവസ്ഥയൊക്കേ വരും അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെക്കാലത്ത് അതൊക്കെയാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്